ഹലോ ഞാനിപ്പോൾ നിങ്ങൾ ഫുഡ് ഡെലിവറി ചെയ്ത അവരാണ് ആ കസ്റ്റമർ ആണ് നിങ്ങളിപ്പോൾ എന്ത് ഫുഡ് എന്ത് ഫുഡ് ആണ് ഇപ്പോൾ കൊണ്ടു തന്നത് ആ ഫുഡിൽ ഒരു പല്ലി ചത്തിട്ടുണ്ട് ആ ഫുഡ് ആണോ നമ്മൾ കഴിക്കേണ്ടത് ആ ഫുഡിൽ നിങ്ങള ഹോട്ടലിൻ്റെയും ഡെലിവറിയുടെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർടൈസ്മെൻറ്റ് അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത് എന്നിട്ട് ഇങ്ങനെ ഇത്രയും ക്വാളിറ്റി മോശമായ ഫുഡ് ആണോ നിങ്ങൾ ഡെലിവറി ചെയ്യുക ഇതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടതും നിങ്ങൾ വേഗം ഇത് ഒരു പരിഹാരം കണ്ടേ പറ്റൂ ഞാനിതിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ വേഗം വന്ന് എന്റെ പൈസ റിട്ടേൺ തന്നിട്ട് ഇതിന് ഒരു പരിഹാരം കണ്ടിട്ട് പോയാൽ മതി നിങ്ങൾ എന്ത് ഞാൻ ഒരു ഫുഡിൽ ഒരു പാക്കിൽ മാത്രമാണേൽ കുഴപ്പമില്ല ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ പാക്കിങ് ആണോ നിങ്ങളെ ഞാൻ ഇതിൽ എല്ലാ ഫുഡും പാക്ക് തുറന്നപ്പോൾ എല്ലാത്തിലും ഓരോരോ ചിറകും ഈ പല്ലിയും അങ്ങനെ ഓരോരോ ആ സാധനങ്ങളാണ് ഉള്ളത് ഒന്നിൽ മാത്രമാണെങ്കിൽ സാരമില്ല നിങ്ങളെ ക്വാളിറ്റി ഇത്രയും പുവർ ക്വാളിറ്റിയുള്ള ഫുഡ് ആണോ ഡെലിവറി ചെയ്യുന്നത് ഇതിനെ ഇതിനെന്തായാലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ നിങ്ങൾ തീർച്ചയായും തിരിച്ചു വന്നിട്ട് ഇതിനൊരു അഭി പരിഹാരം കണ്ടെത്തി തന്നേ പറ്റൂ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഇത് എന്തായാലും ഞാൻ ഇത് കംപ്ലയിൻറ്റ് ചെയ്യും അത് വേറെ കാര്യം നിങ്ങള എവിടുന്നാണോ ആ ഫുഡ് വാങ്ങിയതെന്ന് വെച്ചാൽ അവരുടെ മാനേജറെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തന്നാൽ വളരെ ഉപകാരം അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം ഈ കംപ്ലയിൻറ്റ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടേ എന്ന്